എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ലൈബ്രറി കണ്ടിട്ടുള്ളത് തന്നെ സ്കൂളിലാണ് അതു ചെറിയൊരു നാല് അലമാരിയിൽ കുറേ കുഞ്ഞി കുഞ്ഞി ബുക്കുകൾ അടുക്കി വച്ചിട്ടുണ്ട് ആ ബുക്കിൽ നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യുക നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കഥകളാണ് ഞാൻ സത്യം പറഞ്ഞാൽ കളിക്കുടുക്കയാണ് അധികം കണ്ട് എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നത് പിന്നൊരു ഞാനൊരു ഹൈ സ്കൂൾ ആ ലെവലിൽ എത്തിയപ്പോഴാണ് ബുക്കുകൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചിരുത അങ്ങനെ എന്താ പറയുക ഞാൻ മലാല യൂസഫ്സായി അങ്ങനെ ഒരുപാട് ബുക്കുകൾ സ്കൂളിൽനിന്ന് വായിക്കാനിടയായിട്ടുണ്ട് എന്താ പറയുക വായിച്ചതിപ്പോഴും മനസ്സിലോർമ്മയൊന്നും നിൽക്കുന്നില്ല എങ്കിൽപ്പോലും ആ വായനാ ശീലം നന്നായിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം നോവെൽസെല്ലാം വീടിനടുത്തുള്ള ലൈബ്രറിയിൽ നിന്നൊക്കെ വാങ്ങി വായിക്കാറുണ്ട് അതുപോലെതന്നെ കുട്ടിക്കാലത്ത് സ്കൂളിൽ വായിച്ചിരുന്ന ബുക്കിൻ്റെ പേരൊന്നും ഓർമ്മയില്ലെങ്കിൽപ്പോലും എന്താ പറയുക ഇപ്പോഴും മനസ്സിൽ ചെറിയ ചെറിയ കഥകൾ മിന്നി മായുന്നത് കുട്ടിക്കാലത്ത് വായിച്ച പുസ്തകങ്ങളിൽ നിന്നാണ് അന്നേ വായനാശീലം വായന ഡേയൊക്കെ വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഓരോ ബുക്കൊക്കെ അവിടെനിന്ന് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്